എനിക്ക് കളി കാണാനല്ലിഷ്ടം കളിക്കാനാണിഷ്ടം പിന്നെ ഞാൻ പണ്ടൊക്കെ നല്ലവണ്ണം കളിച്ചിരുന്നു പല കളികളും പല ഒരുപാട് കളികള് കളിച്ചിട്ടുള്ള ആളേനു പിന്നെ സാറ്റ് കളിച്ചിരുന്നു കട്ടക്കല്ലു കളി കളിച്ചിരുന്നു പിന്നെ കക്ക് കളിയുണ്ട് അത് കളിച്ചിരുന്നു പിന്നെ കള്ളനും പോലീസും കള്ളനും പോലീസൊക്കെ നല്ല രസായിക്കാറുട്ടോ അത് കിട്ടിയവസരം നമ്മള് മുതലാക്കിയാണ്ട് കള്ളന്മാരെ പിടിച്ച് പൂശൂം കെട്ടോ അങ്ങനെയൊക്കെ അത് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാട്ടർ ബലൂണ് അത് ആ കളി കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൽ എം ഒ ഡിസ്റ്റെർപ് പറഞ്ഞിട്ടുള്ളൊരു കളിയന്ന് ഇപ്പോഴത്തെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങള് കളിച്ചിരുന്ന അങ്ങനൊരു കളിയുണ്ടായിനു നമ്മള് ഒരാള് കൈ കെട്ടുക ബാക്കിലുള്ളവര് എന്താണ് അത് കൈ കൊട്ടുമ്പത്തിന് ഓടി വന്ന് പിന്നെ കൈകൊട്ടിയ ആള് ചിരിപ്പിച്ചും അപ്പോള് ഇവര് ചിരിച്ചാതെ നില്ക്കുക ചിരിച്ചാല് പിന്നെ ആ ആളാണ് വീണ്ടും കൈ കൊട്ടാനാവുക അങ്ങനൊരു കളിയായിരുന്നു അത് അങ്ങനെ ഒരുപാട് കളികള് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാറ്റ് കളി ഒരാള് എണ്ണും എണ്ണുമ്പോഴത്തേന് പിന്നെ നമ്മള് ബാക്കിയുള്ളവരൊക്കെ ഒളിച്ചിരിക്കും ആ എണ്ണിയ ആള് ആരെങ്കിലും കണ്ടെത്തുവോളം നില്ക്കുക ഓരോരുത്തരെയങ്ങനെ കണ്ടെത്തുക പിന്നെ ആ ഫസ്റ്റ് കണ്ടെത്തിയ ആള് വീണ്ടും എണ്ണാനാവുക ഞാനും എൻ്റെ കുടുംബത്തിലും അയൽവാസികളുമായിട്ടൊരു പത്ത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ കളിച്ചാന് ഒരു ദിവസം സാറ്റ് കളിച്ചാല് ഒരാഴ്ച്ചയൊക്കെ സാറ്റിങ്ങനെ കളിച്ചിങ്ങനെ പോകും പിന്നെ അത് ചിലപ്പോ നമുക്ക് മടിപ്പ് വരല് തുടങ്ങും കുട്ടികള് പറയും നമുക്ക് മാറ്റി പിടിച്ചല്ലേന്ന് പറയും അപ്പോള് പിന്നെ ചിലപ്പോള് പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസം അടുത്തയാഴ്ചയൊക്കെയായിട്ട് കള്ളനും പോലീസുവാവും പിന്നെ അത് അത് മടുത്ത് വരുമ്പോള് അടുത്ത കളിയെടുക്കും അങ്ങനെ നല്ല രസമായിരുന്നു കളി കാണുന്നതിലേറെ രസം കളിക്കുന്നതാണ്